എനിക്കേറ്റവും ഇഷ്ടം പേഴ്സണലി ഞാൻ ചൂസെയ്യുന്നത് അക്രിലിക് പെയിൻറിംഗാണ് അക്രിലിക് ആവുമ്പോള് തെറ്റു പറ്റിയാലും നമുക്കത് തിരുത്താൻ പറ്റും കളേഴ്സ് ആണെങ്കിലും നല്ല രസമാണ് അത് വെച്ച് കളിക്കാൻ അക്രലിക് പെയിന്റ് വെച്ച് ചെയ്യാൻ അപ്പോള് ഞാൻ കൂടുതലും അക്രിലിക് പെയിന്റിംഗാണ് ചൂസെയ്യാറ് എന്താണ് പെയിന്റിംഗ് രീതി എന്ന് പറയുമ്പോള് ഹാ നമ്മള് ക്യാൻവാസ് ഷീറ്റായിരിക്കും ബോർഡിനെക്കാട്ടിലും ഞാൻ ചൂസെയ്യുന്നത് ഷീറ്റാണ് പല സൈസിലുള്ള ബ്രഷൊക്കെ യൂസെയ്ത് ലാൻഡ്സ്കേപ്പുകള് ചെയ്യും പിന്നെ ലാൻഡ്സ്കേപ്പുകള് ചെയ്യും പോട്രേറ്റ് ചെയ്യും പിന്നെ ഏതെങ്കിലും ഒബ്ജെക്റ്റീവായിട്ടുള്ള പെയിന്റിംഗ് ചെയ്യും പെർസ്പെക്റ്റീവ് ചെയ്യാം ലാൻഡ്സ്കേപ്പുകളാണ് കുറച്ചുകൂടെ നല്ലത് അതാവുമ്പോള് ഒരുപാട് കളേർസ് കൊണ്ടു വരാം നമുക്ക് ഒരു ഇന്ന കളര് തന്നെ വേണം എന്നൊരു തോന്നല് വരത്തില്ല കാരണം സ്കൈയും ലാൻഡ്സ്കേപ്പുകളും എപ്പോഴും ഡിഫറെൻഡ് ഷെയ്ഡുകളായിരിക്കും ഹൈലൈറ്റിങ് പോയിന്റുകള് കൊടുക്കണം എപ്പോഴും കാണാൻ നല്ല ഭംഗി ആയിരിക്കും എന്താണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് വരുന്നേ പിന്നെ ഞാൻ റെസിനാർട്ടാണ് ചൂസെയ്യാറ് റെസിന് ആർട്ട് എന്ന് പറയുമ്പോള് കുറേ നാള് സസ്റ്റൈൻ ചെയ്യുന്നൊരു ആർട്ട് മെതേഡാണ് സോ റെസിൻ യൂസ് ചെയ്തിട്ട് എക്സ്പെൻസീവാണ് പക്ഷെ അക്രലിക് കളേർസ് ഒക്കെ യൂസെയ്തിട്ട് നല്ലൊരു മോൾഡിനകത്തേക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ ക്യാൻവാസ് ബോർഡിലേക്ക് ചെയ്യാം പാറ്റേർണുകള് ചെയ്യാം അപ്പോള് കൂടുതല് ഞാൻ അക്രലിക്കാണ് ചൂസെയ്യണേ നേരത്തെ പറഞ്ഞ കണക്ക് നമക്കെന്താണ് ഇത് ചെയ്യാൻ പറ്റും തെറ്റുകള് വന്നാല് നമുക്ക് പെട്ടെന്ന് കറക്റ്റെയാൻ പറ്റും പെയിന്റിംഗിൻ്റ മെയിൻ പ്രശ്നമാണല്ലോ നമ്മളൊരു കളര് ചൂസെയ്ത് തെറ്റിപ്പോയിക്കഴിഞ്ഞാല് നമുക്കത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഹോൾ പെയിന്റിംഗ് അങ്ങ് മാറ്റാന്നുള്ളൊരു ഓപ്ഷനേ വരുന്നുള്ളൂ അക്രലിക് ആവുമ്പോള് പെട്ടെന്ന് ഉണങ്ങുന്നതു കൊണ്ടും അതിൻ്റെ മേളിലൊരു കളര് ചെയ്ത് കഴിഞ്ഞാല് താഴത്തെ കളര് അതിലേക്ക് സ്പ്രെഡ് ആവാത്തത് കൊണ്ടും ഈസി ആണ് അതുപോലെ തന്നെ വലിയ മെനക്കേടുള്ള പരിപാടിയൊന്നും അല്ല പെയിന്റിംഗ് പഠിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ അക്രലിക് നല്ലതായിരിക്കും ഒരു ഇതേ ഉള്ളൂ ബേസ് ഡാർക്ക് കളേർസ് ചെയ്തിട്ട് ലൈറ്റ് കളേർസിലേക്ക് വരുകയാണെങ്കിൽ കുറച്ചുകൂടി ഫിനിഷിങ്ങൊക്കെ വരും അങ്ങനെ അപ്പോള് എനിക്ക് ചെയ്യാനെളുപ്പവും എനിക്ക് ഏറ്റവും ഹാൻഡിയും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും അക്രിലിക് പെയിന്റിംഗ് ചെയ്യാൻ വേണ്ടിയാണ്